ഹലോ ഞാനോടോ ഞാനൊരു ഓർഡർ തരാൻ വേണ്ടീട്ട് വിളിച്ചതാണ് എൻ്റെ വീട് തലശ്ശേരിയാണ് ലൊക്കേഷൻ ഞാൻ വാട്സ്ആപ്പ് ചെയ്തു തരാം എനിക്ക് ഇപ്പോൾ വൈകുന്നേരത്തെക്കാണ് ഒരു അഞ്ചുമണി ആകുമ്പോഴേക്കും ഒരു ആറ് പൊറാട്ട രണ്ട് അൽഫാം വീട്ടിലേക്ക് എത്തിച്ചരണം ഇങ്ങൾ ഇങ്ങൾ ഇപ്പം എവിടെയാണ് ഉള്ളത് അപ്പോൾ വീട്ടിലേക്ക് എത്താൻ വേണ്ടീട്ട് എത്ര ടൈം എടുക്കും എന്താന്ന് നിങ്ങൾ എനക്ക് പറഞ്ഞരണോം പിന്നെ ലേറ്റ് ആവാതെ കറക്റ്റ് ടൈമിന് തന്നെ എത്തണം എനിക്ക് അഞ്ചു മണിയാവുമ്പോഴ്ത്തേക്കും സാധനം കിട്ടേണ്ടതാണ് നല്ല വിശപ്പുണ്ട് നിങ്ങൾ ഓർഡറിന് ഡെലിവറി ആകുന്നത് വെയിറ്റ് ചെയ്തു നിക്കാണ് അപ്പോൾ ലെയ്റ്റ് ആകാതെ തന്നെ ഫുഡ് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരണം അപ്പം ശരി ഇത് ഗൂഗിൾ പേ ഉണ്ടല്ലോ അല്ലേ നിങ്ങൾ ഇവിടെ എത്തുമ്പോൾ അയച്ചുതന്നാൽ മതിയല്ലോ